പതിനാറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പതിനൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന്